ഹലോ ഹലോ ഫ്ലിപ്പ്കാർട്ടല്ലേ ഞാനൊരു ഡെലിവറി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ തീയതി കഴിഞ്ഞിട്ടും ഇതുവരെ അത് ഡെലിവറിയായിട്ടില്ല അത് ആറാം തീയതി ഡെലിവറിയാകാനുള്ളതായിരുന്നു ഇതുവരെയായിട്ടില്ല അതെന്താണ് ഇത്ര ലേറ്റ് ആകുന്നത് എൻ്റെ ഇതിൻ്റെ ഐ ഡി പറഞ്ഞുതരാം ഐ ഡി ഒമ്പത് ആറ് ഏഴ് എട്ട് മൂന്ന് നിങ്ങളത് അന്വേഷിച്ചിട്ട് അറിയിക്കുമോ

ആ ഞാൻ ഓർഡർ ചെയ്തതാണ് ഒരു വീട്ടുപകരണമായിരുന്നു

എത്രയും പെട്ടെന്ന് ലഭിക്കും അല്ലേ

ഡെലിവറി കാണിക്കുന്നുണ്ട് പക്ഷേ ഡേറ്റ് ഇങ്ങനെ കാണിച്ചിട്ടുണ്ട് ആറാം തീയതിയെന്ന് തന്നെയാണ് കാണിച്ചിരിക്കുന്നത് വേറെയൊന്നും കാണിച്ചിട്ടില്ല അതെ ആ ഓക്കെ രണ്ട് ദിവസത്തിനുള്ളിൽ എത്തും ഓക്കെ ഓക്കെ ഓക്കെ